ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ എനിക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദ്ധരണി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന ചെറുകഥയാണ് തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ ഏകദേശം അറുന്നൂറോളം ചെറുകഥകൾ എഴുതിയതിൽ ഏറ്റവും പ്രശസ്തമായ ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്നത് വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുമ്പോൾ അതിൽ പ്രതിപാദിക്കുന്നത് പ്രകൃതിക്ഷോപത്തിൽ കുടിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കൃഷിക്കാരൻ്റെയും അദ്ദേഹത്തിൻ്റെ വളർത്ത് നായയുടെയും ആത്മബന്ധത്തെ കുറിച്ചാണ് അതിൽ പറയുന്നത് നമ്മൾ എല്ലാവരും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രളയത്തെ അതിജീവിച്ച് വന്നവരാണ് നമുക്കപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്ത് മാത്രം നമ്മുടെ ചുറ്റുമുള്ള ജന്തുജാലങ്ങളും ജീവജാലങ്ങളും മനുഷ്യരും ഒരു പ്രളയം വന്നാൽ എന്ത് മാത്രം ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നു എന്നുള്ളത് അനുഭവിക്കും എന്നുള്ളത് നമ്മൾ നേരിൽ കണ്ട് അനുഭവിച്ച കാര്യങ്ങളാണ് ഈ കഥ അതുകൊണ്ട് തന്നെയാണ് അത് എൻ്റെ ജീവിത സാഹചര്യം ആയിട്ട് ഒരുപാട് അത് അർത്ഥവത്തായിട്ട് അല്ലെങ്കിൽ അത് ഒരുപാട് ഇണങ്ങി നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നതും അതുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു വളർത്ത് നായയെ കൊണ്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതായത് കൃഷിക്കാരന് കൂടെ കൊണ്ട് പോകാൻ കഴിയുന്നില്ല വെള്ളപ്പൊക്ക സമയത്ത് അദ്ദേഹം രക്ഷപ്പെടുകയാണ് അപ്പോൾ അത്രയും നാളും ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട് കാവൽക്കാരൻ ആയി നിന്ന് അദ്ദേഹത്തിനോട് അത്രയും ആത്മാർത്ഥതയും സ്നേഹവും കാണിച്ച തൻ്റെ വളർത്ത് നായയെ അവസാന നിമിഷം അദ്ദേഹത്തെ നോക്കുന്ന ഒരു നോട്ടത്തെ ആണ് കഥാകൃത്ത് ഇവിടെ വളരെ നമ്മുടെ ഒരു വളരെ എന്താ ഒരു വികാരധീനനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഏത് ചൊവ്വാ ഗൃഹ വാസിക്കും ആശയം മനസ്സിലാകുന്ന സർവ്വ വിധ ഭാഷ എന്നാണ് ആ നായയുടെ ആ സമയത്ത് വരുന്ന ചലനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ആ സമയത്ത് പുറപ്പെടുവിക്കുന്ന ശബ്ദത്തെ കുറിച്ച് കഥാകൃത്ത് വിവരിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഇത്രക്ക് ദയനീയമായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ അതിൽ നിന്നും ഒരുപാട് ദയനീയമാണ് മിണ്ടാൻ കഴിയാത്ത ജന്തുജാലങ്ങളുടെ അവസ്ഥ ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഒരു പ്ര പ്രകൃതിക്ഷോപം വരുമ്പോൾ ജന്തുജാലങ്ങൾ അനുഭവിക്കുന്നത് വളരെ കഷ്ടത ഏറിയ ഒരു അനുഭവമാണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം വരുമ്പോ ഞാൻ ഇതേപോലെ നമ്മള് എന്തോന്ന് ഇപ്പോ എന്താ കഴിഞ്ഞ പ്രളയത്തിലും നമ്മൾ എല്ലാവരും അനുഭവിച്ചതാണ് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഈ ഭാഗം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഉദ്ധരണി കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ വരികയും എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു ഉദ്ധരിണിയായിട്ട് ഇത് മാറുകയും ചെയ്യുന്നത്